കാലക്രമേണയുള്ള സാങ്കേതിക വിദ്യയുടെ വളർച്ച കാരണം ഫോട്ടോഗ്രാഫിയിൽ ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ട് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അതിൽ പ്രധാന മാറ്റം ആണ് പണ്ട് ഫിലിം ഉപയോഗിച്ച് എടുത്തിരുന്ന ഫോട്ടോകൾ ഇന്ന് ഡിജിറ്റൽ രൂപത്തിൽ ആണ് അതിനാൽ തന്നെ ഒരുപാട് അധികം ഫോട്ടോകൾ എടുക്കുവാനും എടുത്ത ഫോട്ടോയുടെ വ്യക്തതയും മറ്റും നമുക്ക് അപ്പോൾ തന്നെ കാണുവാനും സാധിക്കുന്ന വിധത്തിലേക്ക് സാങ്കേതിക വിദ്യ വളർന്നിരിക്കുന്നു പണ്ട് ഉണ്ടായിരുന്ന ക്യാമറകൾ വളരെ വലുതും ഒരു സ്ഥലത്തു നിന്നും ഒരു സ്ഥലത്തേക്ക് മാറ്റുവാൻ ഒരുപാട് കഷ്ടപ്പാട് ഉള്ളതും ആയിരുന്നു അതിൻ്റെ ഭാഗങ്ങൾ ഒരുപാട് കഷ്ടമായിരുന്നു ഒരു സ്ഥലത്തു നിന്നും മാറ്റുവാൻ അതുപോലെ തന്നെ ഫിലിം ആണ് ഇതിനായി ഉപയോഗിച്ചിരുന്നത് ഇത് ഒരുപാട് ചിലവേറിയ ഒരു കാര്യമായിരുന്നു ഒപ്പം തന്നെ നമ്മൾ പകർത്തിയ ചിത്രത്തെ കാണുവാനോ അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കുവാനോ ഒരിക്കലും അപ്പോൾ തന്നെ സാധിക്കുക അപ്പം ഫോട്ടോ എന്നുള്ള രൂപത്തിലേക്ക് മാറ്റിയ ശേഷം മാത്രമാണ് അതിനെ പറ്റി നമുക്ക് അറിയാൻ സാധിക്കാറ് കാലക്രമേണയുള്ള സാങ്കേതികവിദ്യയുടെ വളർച്ച മൂലം ഇന്ന് ഡിജിറ്റൽ ക്യാമറകൾ ആണ് മിറർലെസ്സ് ക്യാമറകളും ഡിഎസ്എൽആർ ക്യാമറകളും ഇന്ന് വിപണിയിൽ സജീവമാണ് ഡിഎസ്എൽആർ ക്യാമറകളും മിറർലെസ്സ് ക്യാമറകളും ചിത്രത്തെ സെൻസർ വഴി പകർത്തുകയും ഡിജിറ്റൽ രൂപത്തിൽ അവയിലുള്ള ഡിസ്പ്ലേ വഴി കാണിക്കുകയും ചെയ്യുന്നു ഡിഎസ്എൽആർ ക്യാമറകളിൽ ഒരു മിറർ ഉപയോഗിച്ച് ചിത്രം പ്രതിഫലിപ്പിച്ച് ഇയർപീസ് എന്ന ഭാഗത്തിലൂടെ നമുക്ക് നേരിട്ട് കാണുവാൻ സഹായിക്കുകയും മിറർലെസ്സ് ക്യാമറകൾ ഇവയെ സെൻസർ വഴി ക്യാപ്ചർ ചെയ്ത് ഡിജിറ്റൽ രൂപത്തിൽ നമ്മുടെ കൺമുന്നിൽ കാണിക്കുകയും ചെയ്യുന്നു ഡിജിറ്റൽ ക്യാമറകളുടെ വരവോടു കൂടി നമുക്ക് ഒരുപാട് ക്യാ ഫോട്ടോകൾ എടുക്കുവാനും സൂക്ഷിക്കുവാനും അവയെ പറ്റി അറിയുവാനും കഴിയുന്നു അതുപോലെ തന്നെ മൊബൈൽ ഫോട്ടോഗ്രാഫി ഈ ഒരു വിഭാഗത്തിൽ വന്ന ഒരു വളർച്ചയാണ് മൊബൈൽ ഫോട്ടോഗ്രഫി ഉള്ളത് കാരണം ഏതൊരാൾക്കും ഏതൊരു സന്ദർഭത്തിലും നിഷ്പ്രഭമായി ഒരുപാട് നല്ല ചിത്രങ്ങൾ എടുക്കുവാൻ സഹായിക്കുന്നു നല്ല മൊബൈൽ ക്യാമറകൾ സുഖമായി കൈകാര്യം ചെയ്യുവാനും പറ്റും ഏതു സ്ഥലത്തോട്ടും എടുത്തുകൊണ്ട് പോകുവാനും വളരെ ഏറെ സുഖം ആണ് ഇന്ന് എല്ലാവരുടെയും കൈയിൽ മൊബൈൽ ഫോൺ അവൈലബിൾ ആണ് അത് എല്ലാവരും ഉപയോഗിക്കുന്നു ചിത്രങ്ങൾ പകർത്തുന്നു ഇന്നത്തെ സാങ്കേതിക വളർച്ചയുടെ ഫലം മൂലം ഇന്ന് ഫോട്ടോ എടുക്കുന്നത് വളരെ ഏറെ എളുപ്പം ഉള്ള കാര്യം ആണ് പണ്ട് ഒരു ഫോട്ടോ എടുക്കണമെങ്കിൽ സ്റ്റുഡിയോ അല്ലെങ്കിൽ അതുപോലുള്ള വേറെ സ്ഥലങ്ങൾ പോകുകയും ഒരുപാട് ചിലവേറിയ കാര്യങ്ങൾ ആയിരുന്നു ഇന്ന് ഒരു ഫോട്ടോ എടുക്കണം എന്ന് തോന്നിയ ഒരു മിനിറ്റിനകം നമുക്ക് നമ്മുടെ മൊബൈൽ ഫോൺ വഴി എടുക്കുവാൻ സാധിക്കും